ഇടുക്കി ജില്ലയിൽ പ്രധാന ഉല്ലാസ പ്രവർത്തനങ്ങൾ വിനോദ പരിപാടികളൊക്കെ ഏറെ നടക്കുന്നുണ്ട് ഒരുപാട് വിനോദ സഞ്ചാരികളൊക്ക അതുകൊണ്ടുതന്നെ ഇടുക്കിയിലേക്ക് വരുന്നുണ്ട് ഇടുക്കിയിൽ ഒരു പ്രധാന വിനോദ സഞ്ചാര മേഖലയാണ് മൂന്നാർ ആ ആനച്ചാലൊക്കെ ഇടുക്കിയിലെ ഒരു ഭാഗമായിട്ടുള്ള ഒരു വിനോദസഞ്ചാര മേഖലയാണ് അവിടെയാണ് കൂടുതലും വിനോദ പ്രവർത്തനങ്ങളൊക്കെ കൂടുതലായിട്ടും നടത്തപ്പെടുന്നത് വണ്ടർവാലി അതുപോലെതന്നെ ഡ്രീം ലാൻ്റ് തുടങ്ങിയ ഒരുപാട് വിനോദപ്രവർത്തന മേഖലകളവിടെ നടക്കുന്നുണ്ട് അഡ്വഞ്ചറായിട്ടുള്ള സ്ലിപ് ലൈൻ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളും അവിടെ പ്രവർത്തിക്കുന്നുണ്ട് അത് വിനോദസഞ്ചാരികളെ കൂടുതൽ ആഹ്ളാദിപ്പിക്കാനായിട്ട് ആതുകൊണ്ടൊക്കെ സാധിക്കുന്നുണ്ട് അതുപോലെതന്നെ പാർക്കുകളും കായിക സൗകര്യങ്ങളൊക്കെ ഏറെ അവിടെ നിലനിൽക്കുന്നുണ്ട് ചെറിയ പിള്ളേർക്ക് മുതൽ വലിയവർ ആയിട്ടുള്ളവർക്ക് വരെയും അഡ്വഞ്ചറായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനായിട്ട് ആ വിനോദ പരിപാടികളിലൂടെ സാധിക്കുന്നുണ്ട് സിപ് ലൈനൊരു വലിയ അഡ്വഞ്ചറായിട്ടുള്ളൊരു പരിപാടിയാണ് കാരണം ആ ഒരുപാട് അടിയോളം മുകളിൽക്കൂടി എയറിലിങ്ങനെ പോവുകയെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ മനോഹരമായ ഒരു അനുഭവം തന്നെയാണ് അതുപോലെ തന്നെ എയർ ബലൂണിൽ കയറുന്നതും ഒരു വളരെ മനോഹരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കാരണം അത് ഇടുക്കിയിലെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ നിലനിൽക്കത്തുള്ളൂ ഇവിടെ വരുന്ന വിനോദസഞ്ചാരികൾ കൂടുതലായിട്ട് അതിങ്ങ് കയറുന്നതും അതിലൊക്കെ തന്നെയാണ് പിന്നെ ഒരുപാട് സാംസ്കാരികമായിട്ടുള്ള പരിപാടികളൊക്കെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നടത്തപ്പെടാറുണ്ട് ആളുകൾ പോകുന്ന ഒരുപാട് സിനിമ തിയേറ്ററുകളൊക്കെ ഇവിടെ നിലവിലുണ്ട് ആളുകൾ പോകുന്ന സിനിമ തിയേറ്ററുകൾ ഇടുക്കിയുടെ പല ഭാഗങ്ങളിലുമായിട്ട് നിലനിൽക്കുന്നുണ്ട് ആ തീയേറ്ററുകളിലെല്ലാം വിവിധ സിനിമകൾ വിവിധ സമയങ്ങളിൽ അറേഞ്ച് ചെയ്തഉ വെച്ചിട്ട് അറേഞ്ച് ചെയ്യുന്നതുകൊണ്ടപ്പോൾ ഓരോ പരിപാടികൾക്ക് ഓരോ സമയത്തുള്ളതിൽ ഓരോ ആൾക്കാർ അവരുടെ സൗകര്യാനുസൃദമാണ് അതിൽ പങ്കെടുക്കുന്നത് രാത്രിയിൽ രാത്രി കാലങ്ങളിൽ കൂടുതലും സുഹൃത്തുക്കളോടൊപ്പം പുരുഷന്മാരൊക്കെ അതിൽ തീയേറ്ററുകളിലൊക്കെ പോയി സിനിമ കാണാനായിട്ട് കൂടുതൽ തീയേറ്ററുകളിലൊക്കെ പോയിട്ട് സിനിമ കാണാറുണ്ട് പിന്നെ ഹിൽ ഇടുക്കി ഹിൽ വ്യൂ പാർക്കൊക്കെ വളരെ ഫേമസായിട്ടുള്ള പാർക്കാണ് അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കായികമായിട്ടും വിനോദപരമായിട്ടും കുട്ടികളടക്കം മുതിർന്നവരൊക്കെ എല്ലാവർക്കും വിനോദങ്ങളിൽ ഏർപ്പെടാൻ പറ്റുന്ന പല കാര്യങ്ങളും അവിടെയുണ്ട് അതുപോലെതന്നെ പൂന്തോട്ടങ്ങൾ ഒക്കെ ഇടുക്കിയുടെ വിവിധ ഭാഗങ്ങളിൽ നിലനിൽക്കുന്നില്ല പച്ചപ്പും ഹരിതാപവുമാർന്നൊരു ഭൂപ്രദേശമായതിനാൽ തന്നെ പൂക്കളൊക്കെ ഇവിടെ വളർന്നു വരാനായിട്ട് വളരെയധികം സൗകര്യപ്രദമാണ് ഒരു വേനൽ കാലഘട്ടം ആവുമ്പോഴേക്ക് ഇവിടെ കാണുന്ന ആ കാണപ്പെടുന്ന ഏറ്റവും മനോഹരമായ പൂക്കളാണ് കടലാസ് റോസുകൾ അവ ഉണ്ടായി നിൽക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ആരെയും ആകർഷിക്കുന്ന വിധത്തിലുള്ളവയാണ് അവ പല നിറങ്ങളിലും പല വർണ്ണങ്ങളിലും നിറപ്പകിട്ടാർന്ന രീതിയിലാണ് അതുണ്ടാവുന്നത് പിന്നേ ഇടുക്കിയിലെ വിനോദസഞ്ചാര മേഖലകളിൽ ഒരുപാട് പൂക്കൾ വിനോദ സഞ്ചാരികളെ ആകർഷിക്കാൻ വേണ്ടിയൊക്കെ ഇത് ഉണ്ട് എന്നാൽ ഇത്തരത്തിൽ കായിക വിനോദ പരിപാടികളൊക്കെ ഏർപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത്തരം സ്ഥാപനങ്ങളിലേക്ക് കടക്കാനായിട്ട് പാസ്സ് അത്യാവശ്യമാണ് പണം നൽകേണ്ടത് അത്യാവശ്യമാണ് പണം നൽകേണ്ടത് അത്യാവശ്യമാണ് ഒരാൾക്ക് ഒരാളുടെ ഏജിന് അനുസൃതമായിട്ടാണ് പണം നൽകേണ്ടത് ചെറിയവരാണെങ്കിൽ അതിനനുസരിച്ചിട്ട് പണം നൽകണം മുതിർന്നവരാണെങ്കിൽ അതിനനുസൃതമായിട്ട് പണം നൽകണം അതുപോലെതന്നെ ഓരോ പ്രായക്കാർക്ക് അനുസൃതമായിട്ടാണ് പാസ്സ് നൽകേണ്ടത് അതിന് ഒരുപാട് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരുപാട് മേഖലകൾ നിലനിൽക്കുന്നുണ്ട് ഇടുക്കിയിൽ തന്നെ ഒരുപാട് പാർക്കുകളും കാര്യങ്ങളും എല്ലാം നിലനിൽക്കുന്നുണ്ട് ഒരുപാട് മൗണ്ടേൻസുണ്ട് അന്യ രാജ്യക്കാരെ ഒരുപാട് ആകർഷിക്കുന്ന തരത്തിലുള്ള വരയാടുകൾ തുടങ്ങി ഒരുപാടു കാര്യങ്ങൾ ഇടുക്കിയിൽ നിലവിലുണ്ട് പിന്നെ കുട്ടികൾക്ക് വിനോദസഞ്ചാരങ്ങളിൽ ഏർപ്പെടുന്ന മൈതാനങ്ങളും നിലവിലുണ്ട് വൈകുന്നേരങ്ങളിൽ വീടിനടുത്തുള്ള മൈതാനങ്ങളിൽ പോയി വിനോദസഞ്ചാരത്തിൽ ഏർപ്പെടാനും കായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും കുട്ടികൾ അതീവ തൽപ്പരരാണ് അവിടുത്തെ ആ പ്രദേശത്തുള്ള ഒരുപാട് പേരെ അവരുടെ ചെറുപ്പം മുതലുള്ള കുളി കളിക്കൂട്ടുകാരെ സുഹൃത്തുക്കളെയൊക്ക വിളിച്ച് അവരോടൊപ്പം കോളേജും സ്കൂളും കഴിഞ്ഞുള്ള ആ സമയങ്ങളിൽ അവരോടൊപ്പം വിനോദ പ്രവർത്തനത്തിലൊക്കെ ഏർപ്പെടാനായിട്ട് മൈതാനങ്ങൾ ഏറെ സഹായകരമാണ് അതൊരു ടെൻഷൻ റിലീഫായിട്ടുള്ളൊരു കാര്യം കൂടിയാണ് ആ ആ എൻ്റെ വീട് ആനച്ചാൽ ആയതുകൊണ്ടുതന്നെ എൻ്റെ വീടിൻ്റടുത്തേറ്റവും കൂടുതലാൾക്കാർ പോവുന്ന സിനിമ തീയേറ്റർ എന്നു പറയുന്നത് അത് അടിമാലിയാണ് അടിമാലിയിലെ മാതാ തീയേറ്റർ എന്നു പറയുന്നതാണ് പണ്ടൊന്നും ഒത്തിരി ഫെസിലിറ്റീസും ഇല്ലായിരുന്നെങ്കിൽപ്പോലും ഇപ്പോൾ ഒരുപാട് അതിനുള്ള സൗകര്യങ്ങളൊക്കെ നല്ല സൗകര്യങ്ങളായിട്ട് തീയേറ്ററുകൾ വരുന്നുണ്ട് ആ തിയേറ്ററുകളിൽ ആണെങ്കിൽ ഒരുപാട് ഷോകളൊക്കെ നടത്താറുണ്ട് പല സമയങ്ങളും ചിലപ്പോൾ പല സിനിമകളായിരിക്കും നടത്താറ് ഓരോരുത്തരുടെയും സൗകര്യപ്രദം അവർ ഓരോ സിനിമകളൊക്കെ കാണാറുണ്ട് പിന്നെ പൂന്തോട്ടങ്ങൾ ആയിരുന്നാൽപ്പോലും മൂന്നാറിൽ പൂന്തോട്ടങ്ങൾക്കുവേണ്ടി തന്നെ ഫ്ലവർ ഷോ അതുപോലെ തുടങ്ങിയ കാര്യങ്ങളൊക്ക നടത്താറുണ്ട് ആ ഫ്ലവർ ഷോ നടത്തുന്നതുപോലും വിനോദസഞ്ചാരികളെ ആകർഷിക്കാനും അവിടത്തെ ആളുകൾക്ക് കൂടുതൽ കണ്ണിന് ഉന്മേഷം നൽകാനുമൊക്കെ വേണ്ടിയാണ് കാരണം അത്രയേറെ മനോഹരമായിട്ടുള്ള പൂക്കളാണ് പൂക്കളോട് ഏറെ സ്നേഹവും അതുപോലെ കരുതലൊക്കെയുള്ള ഒരുപാട് ആൾക്കാർക്ക് അതൊക്കെ കണ്ണിനെ കുളിരണയിപ്പിക്കുന്ന കാഴ്ച്ചകളാണ് അതുകൊണ്ടുതന്നെ ഒരുപാടു പേർ അതൊക്കെ കാണാനായിട്ടൊക്കെ വരും ഇരവികുളം നാഷണൽ പാർക്കായിരുന്നാൽപ്പോലും അവിടെ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഒന്നാണ് വരയാടുകളെന്നു പറയുന്നത് ഇടുക്കിയുടെ മറ്റു പ്രദേശങ്ങളിലൊന്നും കാണപ്പെടാത്ത വരയാടിനെ ഒന്നും കാണപ്പെടാത്ത ഒന്നാണ് വരയാടുകളെന്നു പറയുന്നത് അത്തരം വരയാടുകളിൽ വരയാടുകളെ കാണാൻ സാധിക്കുന്നതിനുവേണ്ടി ഒരുപാട് ആളുകൾ വരാറുണ്ടെങ്കിലും വരാറുണ്ട് മറ്റ് ഒരു നോർമൽ ആടിനേക്കാളും വ്യത്യസ്ഥമായ രീതിയിലാണ് ആ വരയാടുകളെ കാണപ്പെടുന്നത് വനസംരക്ഷണത്തിൻ്റെ പേരിലും ഒരുപാട് പാർക്കുകളൊക്ക ഇന്ന് നിലവിലുണ്ട് പണ്ട് അത് പണ്ടത്തേതിൽ നിന്ന് ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നും ഉണ്ട്